വിശ്രമിക്കാനോ ധ്യാനിക്കാനോ ഉള്ള ഒരു മാര്ഗമായിട്ട് ആകാശ വിക്ഷേപണത്തിനെ ഒരിക്കലും ഞാന് കണ്ടിട്ടില്ല എനിക്ക് പഠനത്തിന്റെ ഭാഗമായിട്ട് ആകാശത്തെ ഓരോ നമ്മളെ സ്റ്റാര്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടു മാത്രമേ ഞാന് ആകാശ വീക്ഷണം നടത്താറുള്ളൂ പിന്നെ എന്തെങ്കിലും ആകാശത്തിൻ്റേതിൽ പ്രത്യേകമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ ന്യൂസൊക്കെ കിട്ടി കഴിഞ്ഞാല് മാത്രമേ നമ്മൾ ആകാശത്ത് ആ സമയം ആവുമ്പോഴത്തേക്കും പോയി നോക്കാറുണ്ട് അതൊക്കെ കാണാന് വേണ്ടിയിട്ടു അല്ലാതെ നമുക്കൊരു വിശ്രമം എന്ത് സമയം പോകുവാന് വേണ്ടിയിട്ടു അങ്ങനെ ആകാശത്ത് നോക്കിയിരിക്കുന്നൊരു സ്വഭാവം എനിക്കില്ല നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ജീവിതശൈലി അനുസരിച്ച് അങ്ങനെ ചെയുന്ന ആളുകൾ വളരെ കുറവായിരിക്കാം ഇപ്പോൾ സോഷ്യല് മീഡിയയില് അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് ആള്ക്കാർ സമയം വിശ്രമിക്കാനൊക്കെ ഉള്ള ഒരു സമയം കണ്ടെത്തുന്നതപ്പോൾ എന്റെ ജീവിതം എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആകാശത്ത് നോക്കിയിരുന്ന് അങ്ങനെ സമയം പോവാൻ സമയം അങ്ങനെ ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു അവസരം എനിക്ക് കുറവാണ് ഞാന് അങ്ങനെയുള്ള അവസരങ്ങൾ കണ്ടെത്താറില്ല അങ്ങനെ ഞാന് ഒരിക്കലും ചെയ്യാറില്ല